വീഡിയോ ഗെയിമുകളും വീഡിയോ ദൃശ്യങ്ങളും കണ്ടന്റുകൾ ഇതിനിടക്ക് ഗെയിമിനെ നന്നായിട്ട് തന്നെ ബാധിച്ചിട്ടുണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ടുള്ളത് പണ്ടത്തെ തലമുറയെ വെച്ച് നോക്കിയാൽ മതി പണ്ടത്തെ തലമുറയിൽ നമ്മൾ ക്രിക്കറ്റ് കളിയ്ക്കാൻ പോകുന്നു പാടത്ത് കളിക്കുന്നത് എന്ന് വെച്ചിട്ട് നമ്മൾക്ക് കുട്ടികൾക്ക് കിട്ടുന്ന ഫ്രീ ടൈമിനെ നമ്മൾ ഓരോ കളികളിലൂടെ ഏർപ്പെട്ടിട്ടും ഒഴുവാക്കലാണ് സാധാരണ കളിച്ച് തീർക്കലാണ് ഇപ്പോഴത്തെ ജനറേഷൻ്റെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എല്ലാവരും ഫോണിലാണ് കളിക്കുന്നത് ഫോണിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഏകദേശം പണ്ടത്തതിനെ കാട്ടിലും ഫോൺ കുറച്ചും കൂടി യൂസബിൾ ആയി തുടങ്ങി ഗെയിമ്സിൻ്റെ വരവായി ഗെയിംസ് ഫോണിലുള്ള ഓരോ ഗെയിമുകൾ പിന്നെ വീഡിയോകൾ അങ്ങനത്തെയൊക്കെ കാണാൻ തുടങ്ങി ഒന്നുകിൽ ബെറ്ററായിട്ടുള്ളതാണ് നമ്മൾ സാധാരണ പ്രാക്ടിക്കലായിട്ട് കാണിക്കുന്നതിനെക്കാട്ടും ഇപ്പം കളിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഗെയിംസ് ഗെയിംസിൻ്റെ തന്നെ മറ്റേ ഇത് ഫോണിൽ കളിക്കുന്നത് ഈ പബ് ജി അങ്ങനത്തെയൊക്കെ ഇപ്പം കൂടുതലായിട്ട് ഫോണിൽ തന്നെയാണ് എല്ലാവരും യൂസ് ചെയ്യുന്നത് വീഡിയോസ് കാണുന്നത് കളികൾ ഒഴിവാക്കിയിട്ട് കാണുന്നതായി കളിക്കുന്നത് പകരം കാണുന്നത് മാത്രമായിട്ട് മാറി അത് ഒന്നാമത്തെ കാരണം ഞാനാ കൊറോണക്ക് ശേഷമൊക്കെയാണ് അങ്ങനെയൊക്കെ സംഭവിച്ചത് ഏത് കളികളൊന്നും ഇല്ലാണ്ട് നമ്മൾ ഫോണിലൂടെ മാത്രം കാണാൻ തുടങ്ങിയത്